ബാങ്കിംഗ് സേവനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ സാങ്കേതികവിദ്യ വളരെയധികം സഹായിച്ചിട്ടുണ്ട് നമ്മള് ബാങ്കില് പോയി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നമ്മുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെതന്നെ എന്തു ചെയ്യുകയാണെങ്കിലും ഒരു കാശെടുക്കാൻ ആണെങ്കിലും കാശ് ഇടാനാണെങ്കിലും നമ്മൾക്ക് ബാങ്കില് പോകാതെ ക്യൂ നില്കാതെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മള് മാറിയിട്ടുണ്ട് അങ്ങനെ ടെക്നോളജിയിലുണ്ടായ മാറ്റം തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയില് നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാങ്കിംഗ് സേവനങ്ങൾ നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇപ്പം ഒരു ബാങ്കിൻ്റെ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാങ്കില് പോയി അവിടെ അപേക്ഷയൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം സ്റ്റേറ്റ്മെൻ്റ് കിട്ടാൻ പക്ഷേ ഇപ്പോൾ എന്താന്ന് വെച്ചാല് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ഫോണൊക്കെയുണ്ട്ന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിംഗ് സ്റ്റേറ്റ്മെൻ്റൊക്കെ കിട്ടും പിന്നെ എന്താ നമ്മള് നമ്മക്കിപ്പോൾ എന്തെങ്കിലൊരക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളവിടെ പോണം ഫോം ഫിൽ ചെയ്തു കൊടുക്കണം നമ്മള് ഫോട്ടോസ് കൊടുക്കണം അവരാ ആ കോപ്പി ഈ കോപ്പി എന്നൊക്കെ പറഞ്ഞു നമ്മളോട് കുറെ ചോദിക്കാറുണ്ട് അവിടെ സൈൻ ചെയ്യണം ഇവിടെ സൈൻ ചെയ്യണം എന്നൊക്കെ പക്ഷേ ഇവിടെ നമ്മള് വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ഫോണോ ലാപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത്ചെയ്യാം ഒരക്കൗണ്ടൊക്കെ എടുക്കാം അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മള് ഫസ്റ്റ് ഫസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങ് ഓൾറെഡി നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കവര് പറഞ്ഞാമതി ഇത് എന്ത് ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടേന്നൊള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തരാണ് ചെയ്യാ പക്ഷേ ഇപ്പോന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞുതരാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ആൾക്കാരില്ലാത്തതിന്റെ ഒരഭാവം പറഞ്ഞുതരാൻ ആരുമില്ലാത്തതിന്റെ ഒരു പ്രശ്നം ആദ്യം ഉണ്ടാവും നമ്മൾ ഒരിക്കൽ ചെയ്തു കഴിയുന്ന സമയത്ത് നമുക്ക് ആരുടെയും സഹായമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും